എയിക് ടു സെഡ് കേബിനല്ലേ അതെ ഹലോ സാർ എനിക്ക് നാ ഇൻറ്റെർ കൊച്ചി ഇൻ്റെർനാഷണൽ എയർപോട്ടിലോട്ട് ഒരു വണ്ടി വേണമായിരുന്നു ഒരു ക്യാബ് വേണമായിരുന്നു രാത്രിയായിരിക്കും രാത്രി നിങ്ങളുടെ സർവീസ് ഉണ്ടാകുമോ ഓക്കേ സാർ ഞാൻ ഇപ്പോൾ വായനാട്ടിന്നാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്കവിടുന്ന് അവിടം വരെ പോകണം അതെ നാളെ എനിക്ക് പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അതിനനുസരിച്ച് എനിക്കെത്തണം ഓക്കേ സാർ അപ്പോൾ എൻ്റെ കരക്ട് ലൊക്കേഷൻ വയനാട് തിരുനെല്ലിയിലാണ് തിരുനെല്ലി പനവല്ലിന്ന് പറയും അതെ ഞാൻ അത് വേണമെങ്കിൽ ലൈവ് ലൊക്കേഷൻ ഇട്ടേരാം വാട്സാപ്പില് ഓക്കേ സാർ നിങ്ങളപ്പോൾ എത്ര മണിയാവുമ്പോൾ ഓക്കേ സാർ താങ്ക് യൂ അത് മാത്രമല്ല സാർ ലഗേജിനു എക്സ്ട്രാ ഫീസുണ്ടോ ഇല്ലല്ലേ ഓക്കേ സാർ താങ്ക് യൂ